ഹലോ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എനിക്കൊന്ന് എറണാകുളത്തേക്കാണ് പോവേണ്ടത് പിന്നെ സംഭവം എങ്ങനെയെന്നു വച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പതിനഞ്ച് പേരുണ്ടാവും ആൾക്കാർ എൻ്റെ കുടുംബവും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ട്രാവലറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കേ ഓക്കേ ഞാൻ ഇതിന് റെൻ്റ് കാര്യങ്ങളൊക്കെ എത്രയാണ് വരിക നമുക്ക് ഓരോ കിലോമീറ്ററിലും റെൻ്റ് അറിയണമായിരുന്നു ആ ഓക്കേ ഓക്കേ അപ്പോൾ ഓരോ കിലോമീറ്ററിനും ഇത്ര റെൻ്റ് വരും അല്ലെ ആ ഓക്കേ എന്നാൽ എനിക്ക് മറ്റന്നാളാണ് പോവേണ്ടത് ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ബുക്ക് ചെയ്തിട്ടേക്കാം ആ ഓക്കേ ഓക്കേ മറ്റന്നാൾ രാവിലെ എട്ടു മണിയാകുമ്പോഴാണ് ബുക്ക് ചെയ്തിട്ടത് ആ ഓക്കേ ഓക്കേ ആ ഇതാണ് കേട്ടോ നമ്പറ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആ ശെരി ശെരി ശെരി ആ നമുക്ക് എറണാകുളം വരെയാണ് പോവേണ്ടത് ഒരു മൂന്ന് ദിവസം അവിടെ നിൽക്കേണ്ടി വരും മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം അതെ അതെ അതെ ആ ഓക്കേ ഓക്കേ ആ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിർത്തിത്തരില്ലേ ഓ ഓക്കേ ഓക്കേ ഓക്കേ ആ എന്നാൽ മറ്റന്നാൾ രാവിലെ എട്ടുമണി ആകുമ്പോൾ ഡ്രൈവറേയും വണ്ടിയും വിട്ടാൽ മതി ഓക്കേ എന്നാൽ